ആ ഹലോ അതെ ആ തന്നെ തന്നെ ആ ആ ചേട്ടായി യ്യോ ഇല്ല ചേട്ടായി എനിക്ക് രണ്ട് മൂന്ന് കല്യാണത്തിൻ്റെ അർജൻറ്റ് വർക്ക്കള് വന്നത് കൊണ്ട് ഞാനത് തൊട്ടില്ല കേട്ടോ അത് കൊണ്ട് ഒരു രണ്ട് കാര്യം ശരിയാ ചേട്ടായി പക്ഷേ എന്തോ ചെയ്യാനാ തയ്ക്കാൻ പറ്റിയില്ല അവർക്ക് പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അത്യാവശ്യമായി രണ്ട് കല്യാണ കേസുകളായിരുന്നു അതുകൊണ്ട് മനസ്സമ്മദത്തിന് ഉടുക്കാനും അല്ലാതെ കെട്ട് കല്യാണത്തിനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ തിരക്കിലായിരുന്നു അതുകൊണ്ട് ഞാൻ ചേട്ടായിയുടേത് ഞാൻ തായ്ച്ചതും ഇല്ല ഈ കാര്യത്തിൽ ഇവരെ ഇവരെ പറഞ്ഞ് വിടാതെ പറ്റത്തില്ലല്ലോ ചേട്ടായി മ്മ് ഓ പൈസയുടെ കാര്യത്തിൽ അല്ലല്ലോ നമുക്ക് സമയം വേണ്ടായോ ആമ്മ് അത് ഈ പിന്നെ രണ്ട് മൂന്നാം തീയതിയോ നാലാം തീയതിയോ നാലാം തീയതിയാ ഇന്ന് ഇപ്പം രണ്ട് ആയില്ലേ ആ ആ അയക്കാം ഇച്ചിരി അടുത്താ മ്മ് ഇല്ല ഇല്ല അവരെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് വിട്ടെന്ന് വച്ച് ഞാൻ ചേട്ടായിയുടെ ഒരു ജോഡിയെങ്കിലും എങ്ങനെയെങ്കിലും തരാൻ നോക്കാവേ

ആ ഹാ ആ

ആ ആ ആ ഇല്ല ഇല്ല തയ്ച്ചില്ല കാരണം ഇവർ ഇങ്ങനെ അർജൻറ് ആയിട്ട് വന്നത് കൊണ്ടേ അവർക്ക് പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ ബന്ധുക്കളുടെയും കൂടെ കുറച്ച് ബ്ലൗസും ചുരിദാറും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തയ്ക്കാൻ പറ്റിയില്ല കാരണം ആ ആ തിരക്കിൽ ആയതുകൊണ്ടാണ് അതിന് സമയവും കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ നോക്കാം ചേട്ടാ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ നോക്കാവേ ഓക്കെ ആ ശരി ഏട്ടായി ആ ഓക്കെ

ആ ആ ഓക്കെ നോക്കാം